ഞങ്ങൽ ഗ്രാമത്തിലേ ജെ ജലനിർഗ്ഗമന സംവിധാനമെന്നു പറയുന്നത് ഒരു വളരെ നല്ലതു തന്നെയായിരുന്നു ഒരു മല മലഞ്ചെരിവായതു കൊണ്ടു തന്നെ നമുക്ക് തോടുകളാണ് പ്രധാനമായിട്ടുള്ളത് പിന്നെ അവനവൻ്റെ വീട്ടിലുള്ള ഇതൊക്കെ അവനവൻ അവനവൻ്റെ മണ്ണിലാണ് അത് ത ശേഖരിക്കാറുള്ളത് പിന്നെ മഞ്ചെരിവായതു കൊണ്ടങ്ങനെ ഈ തോടുകളുള്ളത് കൊണ്ട് അതിലൂടെ ഡയറക്റ്റായിട്ട് പുഴയിലേക്ക് പോകുകയാണ് ചെയ്യുന്നത് നിരപ്പായ പ്രദേശങ്ങളാണീ അതിനു വേണ്ടി ഓവ് ചാലുകളൊക്കെ ഇതാക്കേണ്ടി വരും ഞങ്ങളുടെ മലഞ്ചരിവ് ആയിട്ടു കൂടി റോഡ് സൈഡിലൊക്കെ ഓവ് ചാലുകളും എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അവിടെ പ്രത്യേകിച്ചങ്ങനെ ഡ്രൈനേജ് സിസ്റ്റത്തിന് വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് അനുഭവപെട്ടിട്ടില്ല